ഹലോ എൻ്റെ പേര് ആതിര എന്നായിരുന്നു ഞാൻ പറവൂർനിന്നാണ് വിളിക്കുന്നത് എനിക്കൊരു ക്യാബ് ബുക്ക് അതെയതെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ആ ഉണ്ടോ അത് ചോദിക്കാൻ വരുകയായിരുന്നു സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനാണ് ഒരു ആഗ്രഹം അതുണ്ടായിരുന്നു അതെ അതെ അതെയതെ ഞങ്ങൾ രണ്ടുദിവസത്തെ ട്രിപ്പ് ആണ് രണ്ട് ദിവസത്തെ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് ഇല്ല ഞങ്ങൾ മൂന്നാർ പോവാനായിട്ടായിരുന്നു വിത്ത് ഫാമിലിയാണ്

മൂന്നാറ് അതെ അതെ അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുവായിരുന്നെങ്കിൽ

ഒരു ആ ഒരു ആറ് പേരെ ഒക്കെ അത് തന്നെ ആ മതി മതി മതി ഓക്കേ അപ്പം അതിൻ്റെ റേറ്റ് എങ്ങനെയാ കിലോമീറ്ററ് ആവറേജ് റേറ്റ് ആണോ പറയുന്നത്

ടു ഫിഫ്റ്റി ഒക്കെ ആ ഇരുന്നൂറ്റമ്പത് എന്തെങ്കിലും റേറ്റിൽ ഓഫർ ഒക്കെയുണ്ടോ ഓക്കേ ഓക്കേ ആ അത് ആ പെട്രോള് പെട്രോള് അടി ആ ഓക്കേ ആ അത് ഇതിൽ പെടില്ല അല്ലേ ഓക്കേ ഓക്കേ

അതെ അതെ ഇല്ല രണ്ടുദിവസത്തേക്ക് മാത്രമാണ് രണ്ടുദിവസത്തേക്കാണ് ഇല്ല എക്സ്ട്രാ എക്സ്ട്രാ പെയ്മെൻ്റ് വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം രണ്ട് കറക്റ്റ് രണ്ടുദിവസത്തേക്കാണ് ഈ കിലോമീറ്ററിൻ്റെ ഇതുതന്നെ ഈ കറക്ട് റേറ്റ് ആണ് ടു ഫിഫ്റ്റീല് മാറ്റം ഒന്നും ഇല്ല ഓക്കേ അതെയതെ അതെ ആ പെട്രോള് നോക്കിയിട്ട് ആ ഓക്കേ ഓക്കേ ആ അതെയതെ ആ മൂന്നാർ ആ മൂന്നാർ മാത്രം ഉള്ളു മൂന്നാർ മാത്രം ഉള്ളു ആ അതെ അപ്പം ടു ഫിഫ്റ്റി അല്ല ഇവിടെ കൊണ്ടുവന്ന് തരുവാണോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഓക്കേ ഓക്കേ ഓക്കേ ആ താങ്ക് യൂ താങ്ക് യൂ സൊ മച്ച്